നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള മൂ രണ്ട് മൂന്ന് വ്യവസായങ്ങളാണ് നെയ്ത്ത് കയർ വ്യവസായം റബ്ബർ ടാപ്പിംഗ് എന്നിവ നെയ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ അവരവരുടെ വീടുകളിൽ നിന്ന് സ്വന്തമായി നെയ്യുന്നുണ്ട് കൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നെയ്ത്ത് വ്യവസായങ്ങൾ വളരെ കുറഞ്ഞ് അത് വ്യവസായശാലകളിലേക്ക് മാറി അവിടെ അതിൻ്റേതായ മഷീൻ വെച്ച് മഷീനിലാണ് ഇപ്പോൾ നെയ്തെടുക്കുന്നത് കയർ വ്യവസായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ന് വീടുകളിൽ നിന്ന് കുറച്ചു സ്ത്രീകൾ കൂടി ചെയ്യുന്ന ഒരു വ്യവസായമാണ് അത് കയർ അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചകിരി അവർ വെള്ളത്തിലിട്ട് ഉണക്കി വെച്ച് അത് എടുത്ത് പിരിച്ചിട്ടാണ് കയർ ഉത്പാദിപ്പിക്കുന്നത് മൂന്നാമത്തെ കൃഷിയാണ് പിന്നെ റബ്ബർ ടാപ്പിംഗ് റബ്ബർ ടാപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ കുറച്ച് ആൾക്കാർ ചേർന്ന് രാവിലെ റബർ മുറിച്ച് അതിൻ്റെ പാല് ശേഖരിച്ച് ഒരു ഒരു ട്രേയിലാക്കി അതിനെ ഒറയാക്കി എന്നിട്ട് അതൊരു ഷീറ്റ് പോലെയാക്കി അതിൻ്റെ മഷീനിലിട്ട് കറക്കിയെടുക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞൊന്നല്ല ഒരു വലിയ പ്രവൃത്തി തന്നെയാണ് അത് അതിൻ്റെ റബ്ബർ കൃഷി പിന്നെയുള്ളതാണ് സോപ്പ് നിർമ്മാണം സോപ്പ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ കുറേ അവരുടെ ഓരോ വീട്ടിലെ ഓരോ സ്ത്രീകളും അവരുടേതായ രീതിയിൽ അതിൻ്റേതായ സാമഗ്രികൾ മേടിച്ച് സോപ്പ് ഉണ്ടാക്കുന്ന പരിപാടി അതിൽ അലർജിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ഇങ്ങനെ രണ്ടു മൂന്നു തരം ബിസിനസ്സാണ് ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഉള്ളത്